തുന്നലെന്ന് പറയുന്നത് നല്ലയൊരു കല തന്നെയാണ് അത് ആ ഒരു തയ്ക്കാൻ കൊണ്ടുവരുന്ന വ്യക്തിയുടെ ബോഡിക്കനുസൃതമായി നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോഴാണ് അതിന് വേണ്ടതായ ഒരു സംതൃപ്തി കിട്ടുന്നത് ഈ ഇടുന്നയാൾക്കും തയ്ച്ചു കൊടുക്കുന്നയാൾക്കും അപ്പോൾ ഞാൻ ചെറുത് പല കാര്യങ്ങളും തയ്ക്കാറും ഉണ്ട് എനിക്ക് തയ്ച്ച കൂട്ടത്തിലേറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ക്രിസ്ത്യൻ ബ്രൈഡലിൻ്റെ ഗൗണുകൾ തയ്ക്കുമ്പോഴത്തേക്കാണ് അതായത് അതിൽ ഒത്തിരി വർക്കുള്ള തുണികൾ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരൂ തുണിയിൽ വർക്ക് ചെയ്തും കൊടുക്കാറുണ്ട് അപ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ ബ്രൈഡൽസിന് വരുന്നത് നെറ്റിൻ്റെ തുണിയിൽ നമ്മൾ കല്ലുകളും സ്വീക്വൻസുകളും ഒക്കെ വച്ച് പിടിപ്പിച്ചിരിക്കുന്ന ആ വർക്കുകളാണ് കൂടുതൽ അതിനാണ് കൂടുതൽ ഡിമാൻ്റ് അപ്പോൾ ഞാൻ നെറ്റ് പ്ലെയിൻ നെറ്റെടുത്തിട്ട് അതിൽ കല്ലുകളും സ്വീക്വൻസുകളുമൊക്കെ വച്ച് പിടിപ്പിക്കും അപ്പം നമ്മൾ അതേറ്റവും സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതാണ് അതേ ഒരു വർക്കിനുള്ള ഒരു ഗൗണ് തയ്ക്കണമെങ്കിൽ കുറഞ്ഞത് അഞ്ച് ആറ് മീറ്ററെങ്കിലും നല്ല വിസ്താരമുള്ള ഒരു ഷോയായിട്ടുള്ള ഗൗൺ തയ്ക്കണമെങ്കിൽ നമക്കൊരു അഞ്ചാറ് മീറ്ററ് തുണിയെങ്കിലും വേണം ആ അഞ്ചാറ് മീറ്ററ് തുണിയിലും നമ്മൾ ഇത് തയ്ച്ച് പിടിപ്പിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് പഷേ അത് സന്തോഷത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര എഞ്ചോയ് ചെയ്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എനിക്കത് വളരേ സന്തോഷമുള്ള കാര്യമാണ് എംബ്രോയിഡറി ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വീക്വൻസുകൾ വച്ച് പിടിപ്പിക്കുക അതൊക്കെ എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വർക്കുകൾ ചെയ്തു കൊടുക്കാറുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ പ്ലെയിൻ നെറ്റെടുത്തിട്ട് നമ്മൾ അതിൽ കല്ലുകളും മുത്തുകളും സ്വീക്വൻസുകളൊക്കെ വച്ച് പിടിപ്പിക്കുന്നത് തന്നെയാണ് കാര്യം അത് വളരെ സൂക്ഷ്മതയോടുകൂടി പിന്നെ തന്നെയല്ല നമ്മളൊരു ഷേപ്പ് ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈയ്യാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ബട്ടർഫ്ലൈയ്യുടെ ഷേപ്പിൽ അത് വേണ്ട രീതിയിലതിനെ കളറ് ചെയ്ത് അതിനെ അറേഞ്ച് ചെയ്തു വെക്ക് ചെയ്യണം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അത് പക്ഷേ എനിക്ക് വളരെ സന്തോഷമാണ് ഒരു ഗൗൺ ചെയ്തെടുക്കാൻ നമുക്ക് കുറഞ്ഞത് നമ്മൾ ഇങ്ങനെ പ്ലെയിൻ നെറ്റെടുത്ത് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ട് അത് ഗൗൺ തയ്ക്കാനാണെങ്കിൽ കുറഞ്ഞതൊരു രണ്ട് ഒരു മൂന്ന് നാലാഴ്ച്ചയെങ്കിലും വേണ്ടി വരും അതായത് കുറഞ്ഞതൊരു ഒരു മാസമെങ്കിലും വേണ്ടി വരും ഞാനൊരു ക്രിസ്ത്യൻ ബ്രൈഡിന് അങ്ങനെയൊരു ഗൗൺ ചെയ്തത് വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു അതിന് എനിക്ക് വീണ്ടും ഓഡറ് വന്നിട്ടുണ്ട് ഞാനത് ചെയ്തു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും പക്ഷേ അത് നമ്മുടെ കണ്ണിനും സ്ട്രെയിനാണ് എന്നിരുന്നാലും പക്ഷേ അത് ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ് അത് ഇട്ടു കഴിയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ അത് നന്നായിരുന്നുവെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതും വേണമെന്ന് പറയുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്ന ഒരുപാട് പൈസയേക്കാളും വളരെ നമുക്ക് സന്തോഷദായകം തന്നെയാണ് അതുകൊണ്ട് ഞാൻ അത്തരം വർക്കുകൾ ചെയ്യാറുണ്ട്